തീർച്ചയായും കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നതിനു പ്രാധാന്യം വളരെ ഉണ്ടെന്നു ഞാൻ വിശ്വസിക്കുന്നത് കാരണം കുട്ടികളെ ഇപ്പം നമ്മൾ വീട്ടിലാണെങ്കിലും അതല്ല നമ്മളൊരു ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോഴും ആ സമൂഹത്തിന്റെ ഭാഷ അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും വളരെ അത്യാവശ്യമാണ് കാരണം ആര് ഈ നാട്ടിൽ ഒരു ജീവിക്കുമ്പോഴത്തേക്കും അവിടുത്തെ ഭാഷ അറിഞ്ഞില്ലെങ്കിലത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കുട്ടികൾക്കാണെങ്കിലും അവർക്ക് ബാക്കി കുട്ടികളുമായിട്ടിടപഴകുമ്പോഴൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ടു മാറും ഭാഷ അറിയാണ്ട് വരുമ്പോഴത്തേക്കിന് അപ്പം ഭാഷ ഭയങ്കര ഇമ്പോട്ടൻറ്റാണ് അതു ഭയങ്കര അത്യാവശ്യമാണ് ഒരു ആൾക്കാരുമായിട്ടൊരു കൂട്ടും അവർക്ക് അവർ ആൾകാരിലേക്കൊരു സ്നേഹമൊക്കെ വരുന്നത് നമ്മളവരുടെ അവരവരുടെ മാതൃഭാഷയിൽ സംസാരിക്കുമ്പോഴാണ് അപ്പം ഓരോ നാടിന്റെയും മാതൃഭാഷ ആ നാട്ടിൽ ജീവിക്കുമ്പോഴത്തേക്കിനും അറിഞ്ഞിരിക്കുന്നതു ഭയങ്കര അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം അതു കുട്ടികളെ പഠിപ്പിക്കുന്നതിനു മാതാപിതാക്കൾക്കു വലിയൊരു പങ്കുണ്ട് അപ്പം അങ്ങനെ കുട്ടികളിലേക്ക് ആ ഒരു ഭാഷയുടെ അത്യാവശ്യകത പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് തീർച്ചയായിട്ടും മാതാപിതാക്കളും അദ്ധ്യാപകരുമാണ് പിന്നെ കൂടുതലായിട്ടും അവരതിനെ പ്രെ പ്രെ പ്രോത്സാഹിപ്പിക്കുക ഭാഷ കൂടുതലായിട്ട് ഉപയോഗിക്കാനിപ്പം തെറ്റിപ്പോകുകയാണെങ്കിൽത്തന്നെ അതു കറക്റ്റ് ചെയ്തു നല്ല നന്നാ ശരിയായിട്ടു പറഞ്ഞു കൊടുക്കാനായിട്ടു ശ്രമിക്കേണ്ടതു തീർച്ചയായിട്ടും അത് ആ കുട്ടികളുമായിട്ട് ഏറ്റവുമടുത്തു നിൽക്കേണ്ട നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്